ഹലോ ഇത് ഡോക്റ്റർ ആണോ ഇത് ഇത് കോഴിക്കോട് അടിവാരത്ത് നിന്നാണേ വിളിക്കുന്നത് എനിക്ക് നല്ല നല്ല ജലദോഷമുണ്ട് ഡോക്ടറെ കാണിച്ചിരുന്നു പക്ഷേ കുറയുന്നില്ല അപ്പോൾ ഡോക്ടറോട് എന്തെങ്കിലും ഒരു മരുന്നിന് പറഞ്ഞ് തരുമോന്ന് എന്തോ ഇല്ല ആ ഗുളിക കുടിച്ചായിരുന്നു പാരസിറ്റാമോൾ കുടിച്ചായിരുന്നു പക്ഷേ കുറയുന്നില്ല ആ ആവി പിടിച്ച് ഒരു പ്രാവശ്യം പിടിച്ച് കുറഞ്ഞിട്ടില്ല

ഇല്ലാ ഇഞ്ചക്ഷനൊന്നും എടുത്തില്ല പാരസിറ്റാമോളിൻ്റെ ഗുളിക മാത്രമെ കഴിച്ചിട്ടുള്ളൂ ആ അടിവാരത്ത് ഒരു ഡോക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു ഡോക്റ്ററെ പേര് എനിക്ക് എനിക്ക് ഓർമ കിട്ടുന്നില്ല ആ പാരസിറ്റാമോളാണ് തന്നത് ഉം ഡോക്ടർ എവിടെയാണ് വ് ഡോക്ടർ എവിടെയാണ്

അതെയോ ആ ആ

ഡോക്റ്ററേ വന്ന് കാണാൻ പറ്റുമോ ഒന്ന് നേരിട്ട് വന്ന് കാണാന് ബുക്ക് ചെയ്യണോ ഓ എവിടെയായിട്ടാണ് വരേണ്ടത് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഡോക്ടറെ അപ്പോൾ പിന്നെ ഞാന് നാളെ വരാം ഡോക്ടറേ ഇന്നെനിക്ക് ടൈമില്ല വരാന് നാളെ വരാം പാരസിറ്റാമോളുണ്ട് ആ പിന്നെ വീട്ടില് പിന്നെ കുട്ടികൾക്ക് രണ്ട് പേർക്കും ജലദോഷപ്പനി ഉണ്ടായിരുന്നു അത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വയറൽ പനി ആയിരിക്കും അത്കൊണ്ട് പേടിക്കുവോന്നും വേണ്ടാന്ന് പറഞ്ഞ്

ആ ആ

വേറെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഇങ്ങനെ ജലദോഷം വന്നിട്ട് മൂക്കൊക്കെ അടഞ്ഞിട്ട് ഭക്ഷണമൊന്നും വേണ്ട അങ്ങനത്തെയൊക്കെ ഓരോ ക്ഷീണമൊക്കെ ഉണ്ട് ഓക്കെ ഡോക്ടറെ ഓക്കെ ഓക്കെ ഓക്കെ ഡോക്ടറെ പേരെന്തായിരുന്ന് ഓക്കെ ഓക്കെ ഡോക്ടറെ അപ്പോൾ ശരി